പാഷൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ കണ്ടു വരുന്നൊരു സംഭവമാണ് ബൈക്കിങ്ങ് പണ്ടെന്ന് പറയുമ്പോൾ ഈ ബൈക്ക് കൾച്ചർ ഒന്നും കേരളത്തിൽ തീരെ ഉണ്ടായിരുന്നില്ല ഈയിടെ ആയിട്ടാണ് ബൈക്കിങ് കൾച്ചറ് ഉയർന്ന് വരുന്നത് എന്തെന്നാങ്കിൽ കുറേ അധികം സോഷ്യൽ ഇൻഫ്ലുവൻസർമാർ ആക്ട്ടേഴ്സ്സ് അതേപോലെ കുറേ ആൾക്കാർ ഇതിനെ പ്രെമോട്ട് ചെയ്യുന്നുണ്ട് സേയ്ഫായി റൈഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല ഒരു പാഷനാണ് അല്ലെങ്കിൽ ഹോബിയാണ് ബൈക്കിങ് കുറേ അധികം സ്ഥലങ്ങൾ കാണുവാനും അതേപോലെ തന്നെ റൈഡിൻ്റെ ഫീൽ ആസ്വദിക്കാനുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട് ഇത് ഇപ്പോൾ സ്പീഡിൽ കുറേ സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫീല് കിട്ടണം എന്നില്ല ചിലവർക്ക് അതാണ് ഇഷ്ടം സ്പീഡ് കാട്ടിനാ റെഷ് എന്നാൽ ചിലവർക്ക് ഭംഗിയുള്ള കാര്യങ്ങൾ കണ്ട് കഴിഞ്ഞാൽ മെല്ലെ ക്രൂസ്സ് ചെയ്ത് പോവാനും ഇഷ്ടമാണ് എന്തുസിയാസം എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അധികം ടൈപ്പ്സ് ഓഫ് എന്തുസിയാസം ഉണ്ട് അതിന് ചിലവർ ഓഫ് റോഡ് പോണവരുണ്ട് ചിലവർ കുറേ അധികം ലോങ്ങ് ട്രിപ്പ് പോണവരുണ്ട്

പക്ഷേ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടു വരുന്നത് ഓഫ് റോഡിങ്ങാണ് അല്ലെങ്കിൽ ട്രിപ്പടിക്കാം ആ ഒരു മൈൻഡാണ് വെറുതേ പോലെ പോവും നല്ല വണ്ടി ഉണ്ടാവണമെന്നില്ല ബൈക്കിങ്ങ് ആസ്വദിക്കാൻ നല്ല വണ്ടി വേണമെന്നില്ല മനസ്സുണ്ടായാൽ മതി ബൈക്ക് നല്ല വണ്ടി ഉണ്ടെങ്കിൽ നല്ല മൈൻഡില്ലെങ്കിൽ അത് മര്യാദയ്ക്ക് നമുക്ക് എഞ്ചോയബിൾ ആവില്ല അതിനു വേണ്ടി അത്രയും നല്ല വണ്ടി ഇല്ലെങ്കിലും നല്ല മൈൻഡുണ്ടെങ്കിൽ നമുക്കത് എൻഞ്ചോയ് ചെയ്ത് പോകാം പിന്നെ കേരളത്തിലെ റോഡുകളും ബൈക്കിങ്ങിന് പറ്റിയ ഒരു റോഡാണ് എന്നാലും അധികാരികൾ ബൈക്കിങ്ങിനോട് തീരെ ഇണ ചേരാത്ത ആൾക്കാരാണ് ഒരു ആക്സിഡൻട് ഉണ്ടാവാത്ത രീതിയിൽ ഫുൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ റേയ്സിങ്ങാണൊ റേയ്സിങ്ങാണോ എന്ന് പറഞ്ഞിട്ട് ഫൈനൊക്കെ അടയ്ക്കും അങ്ങനത്തെ മൈൻഡുള്ള ആൾക്കാരാണ് അധികാരികൾ എന്നാലും ഇപ്പം അങ്ങനെ ഒക്കെ മാറി ഇപ്പം നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു ഒരാളും രാഹുൽ ഗാന്ധിയൊക്കെ കൂടിയിട്ട് രാഹുൽ ഗാന്ധിൻ്റെ ഒപ്പം ബൈക്കിങ് ട്രിപ്പൊക്കെ പോവാനു ണ്ടായിരുന്നു ഹിമാലയയിലേക്ക് അപ്പോൾ അതുവരെ നമ്മുടെ ബൈക്കിംഗ് കള്ച്ചറ് മാറി കേരളത്തിൻ്റെ ബൈക്കിങ് കൾച്ചറ് നന്നായി മാറി ഇപ്പോൾ ഒരു ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും വണ്ടിയെടുത്ത് പുറത്തു പോയി വരുമ്പൾത്തേനും ആ ടെൻഷനൊക്കെ മാറും ആ ഒരു രീതിയിലും ബൈക്കിങ് എന്ന് പറയുന്നത് ഒരു എനർജി പോലെയാണ് ചിലവർക്ക് ചിലവർക്ക് അത് ഭയങ്കര ഭ്രാന്തമായ ഒരു അഡിക്ഷൻ പോലെ ആണ് എന്നും വണ്ടിയോടിക്കണം അവിടെ പോകണം ഇവിടെ പോകണം ചിലവർക്ക് ഈ പറഞ്ഞ പോലെ ഇടക്കിടയ്ക്ക് അപ്പം അതാണ് ബൈക്കിങ്